എന്നെക്കുറിച്ച് എന്താ പറയാനാ എന്നെക്കുറിച്ച് പറയാ വെച്ചിട്ടുണ്ടെങ്കില് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാം എനിക്ക് പെട്ടന്ന് സങ്കടം ആവും പെട്ടന്ന് സന്തോഷം വരും പിന്നെ ആത്മാർത്ഥമായിട്ട് ഒരാള് നമ്മളോട് ഫേക്കാണോ ജനുവിനാണോന്ന് എനിക്ക് പെട്ടന്ന് മനസ്സിലാവും പക്ഷെ ഞാൻ എല്ലാരോടും തിരിച്ച് ആത്മാർത്ഥതയോടെ പെരുമാറാൻ ശ്രമിച്ചിട്ടുള്ളു ഇനി എനിക്ക് ഒത്തിരി വായിക്കുന്നത് ഇഷ്ടമാണ് പിന്നെ ചെടി നടുന്നത് ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ് ഇതൊക്കെയാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്